വൈദ്യൂതി ഓണ്ലൈന് ഓഫ്ലൈനായിട്ട് അപേക്ഷ സമര്പ്പിച്ചാല് കിട്ടും ഇപ്പോള് അതുകൂടാതെ ഓണ്ലൈന് വഴിയും പുതിയ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അത് എന്തിനാണ് ഉപയോഗിക്കുന്നേന്ന് അതിന്റെയുള്ള പര്പ്പസ് അതിന്റെ കാരണം ഏരിയ എന്തിനു വേണ്ടിയാണ് അതിന്റെ പ്ളേയ്സൊക്കെ അറിയിച്ചാല് അങ്ങനെയാണ് വൈദ്യുതിബന്ധം സര്ക്കാരില് നിന്ന് നമുക്ക് ലഭിക്കുക ഇത് സാധാരണക്കാര്ക്കാണെങ്കില് ജോലി ഒക്കെ ചെയ്യാന് തിരക്ക് ഉള്ളവര്ക്ക് ഓണ്ലൈന് വഴി അപേക്ഷ സീകരിക്കുന്നുണ്ട് പിന്നെ ഫ്രീ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട് അത് പ്രധാനമന്ത്രി സൂര്യഘർ വിജിലി യോജന എന്ന് പറഞ്ഞ അത് സാധാരണക്കാര്ക്ക് ആയിട്ടുള്ള ഒരു സ്കീമാണ് പി എം സ്കീം അതുപോലെ അത് സൂര്യാ സ്കീം പിന്നെ കര്ഷകര് ഇതങ്ങനെ കര്ഷകരെയും വ്യവസായികളെയൊക്കെയായിരിക്കും ഇത് കൂടുതല് ബാധിക്കുക കര്ഷകര്ക്കെന്നു പറഞ്ഞാല് അവര്ക്ക് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് ജലം എത്തിക്കുന്നത് മറ്റ് മോട്ടോര് വഴി അടിച്ചാണ് അപ്പോള് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന വഴി അതവരെ കൂടുതലായിട്ട് ബാധിക്കും അവര് കൃഷിക്ക് അവര്ക്ക് നാശനഷ്ടം സംഭവിക്കും കൂടുതല് കഠിനാദ്ധ്വാനം ചെയ്യേണ്ടി വരും അങ്ങനെ അതുകൊണ്ട് സര്ക്കാരിൽ നിന്ന് പുതിയ വൈദ്യുത ബന്ധം കിട്ടുന്നത് ഓഫ്ലൈനായിട്ട് അത് സാധാരണക്കാര്ക്ക് വേണ്ടിയുള്ളതാണ്